ഹലോ ആ എന്തൊക്കെയുണ്ട് വിശേഷം ആ നീ എവിടെ ഉള്ളത് ഞങ്ങൾ നിൻ്റെ സ്ഥലത്ത് വന്നിട്ടുണ്ട് കോഴിക്കോട് എത്തിയിട്ടുണ്ട് ആ ഞാനും എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ കൂടെ ഒന്ന് കറങ്ങാം എന്ന് കരുതിയിട്ട് ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലൊക്കെ കറങ്ങി ഇനി ഇപ്പോൾ ഫുഡ് കഴിക്കണമായിരുന്നു ഉച്ച ഭക്ഷണം ആണോ ദം ബിരിയാണിയോ എവിടെയാണ് എമ്പയറിൽ ഓകെ ഓകെ എവിടെയാണ് അടുത്ത സ്ഥലം എവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തോ

ഞങ്ങൾക്ക് കുറച്ച് സ്വീറ്റ്സ് വാങ്ങിക്കണമെന്ന് ഉണ്ടായിരുന്നു മിഠായി തെരുവിൽ അല്ലേ ആ ആ ആ അവിടെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പം നമ്മൾ നല്ല ഇത് കിട്ടുന്ന ഹൽവയൊക്കെ കിട്ടുന്ന സ്ഥലം അല്ലെങ്കിൽ ആ കടയുടെ പേര് ഒന്ന് പറയാമോ ആ ആ ആയിക്കോട്ടെ ഉം ശരി എന്നാൽ കേട്ടോ ഓകെ ബൈ